ഞങ്ങൾക്കിവിടെ ഞങ്ങളിവിടെ വഴികൾ ഇങ്ങനെ വഴികളിലൂടെയാണ് നടക്കാൻ പോവുക അല്ലെങ്കിൽ ഓടാനൊക്കെ പോവാറ് നമ്മുടെ സ്ഥലങ്ങളോടെ ഇപ്പോൾ നമ്മുടെ വീട്ടിന്നാണേ നമ്മൾ പിലാക്കാവ് വരെ പിലാക്കാവ് വരെ ഓടാൻ പോവാറുണ്ട് റോട്ട്ക്കൂട അപ്പം രാവിലെ ഒരുപാട് ആൾക്കാർ നടക്കാൻ പോരുന്നവരും ഓടാൻ വരുന്നവരും എക്സർസൈസ് ചെയ്യാൻ വരുന്നവരൊക്കെ ഒരുപാട് ഉണ്ടാവും വഴികളിലൂടെ ഒക്കെ അപ്പം നമ്മൾ ഞങ്ങൾ ഇവിടെ ഒരു അഞ്ചാറ് പേര് കൂടീട്ടാണ് ഇവിടുന്ന് ഒരുമിച്ച് പോവാ പോയിട്ട് രാവിലെ പോരും അഞ്ച് മണിയാവും പോയിട്ടൊരു ആ ഏഴ് മണി ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആവുമ്പോഴ്ത്തേക്ക് നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തും അപ്പോൾ നമ്മൾ ഇവിടിന്ന് വീട്ടിന്ന് എന്താ മെല്ലെ എന്ന പ സ കൂടുതൽ സമയവും നമ്മൾ നടക്കാറാണ് പതിവ് ഓടാറ് അധികം ഇല്ല പെട്ടെന്ന് കിതപ്പ് വരുന്നോണ്ട് അപ്പം നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് നടന്ന് നടന്ന് ഇവിടിന്ന് നമ്മുടെ ഇവിടിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ നമ്മൾ നടക്കാറുണ്ട് എന്നട്ട് തിരിച്ച് വരും അതുപോലെതന്നെ തിരിച്ച് വരും അപ്പം നമുക്ക് ഇത്രാ ആ അഞ്ച് മണി മുതൽ ഒര് ഏഴ് ഏഴുമണി ഏഴേ ഏഴേ കാലൊക്കെ വരെ നമുക്ക് നടക്കാം അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോവാറ് നമ്മളൊരു അഞ്ചാറ് പേര് കൂടിയിട്ടാണ്ണ് പോവാറ്